നമ്മളൊരു ഏഴ് പേരുവായിട്ടായിരുന്നു ഈ റേയ്സിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടത് നാട്ടുകാരും കുറേ പേര് കാണികളായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുൾ നമ്മളെ കയ്യടിച്ചും അലർച്ചയുണ്ടാക്കിയും നമ്മളെ പ്രോത്സാഹിപ്പിച്ചു ഇരുണ്ട വഴികളിലൂടെയും മണ്ണിട്ട വഴികളിലൂടെയും കാടുകളിലൂടെയും കുണ്ടും കുഴിയുമുള്ള റോഡുകളിലൂടെയാണ് ആയിരുന്നു റേസിംഗ് വളരെയധികം നല്ല പവറുള്ള വണ്ടിയായതുകൊണ്ട് നിസാരമായി അതൊക്കെ കടന്നുപോയി പക്ഷെ അപകടങ്ങൾ കാത്തിരിക്കും എന്ന് പറയുന്നത് ശരിയാണ് റേസിംഗ് ഓടിക്കുമ്പോൾ അപകടങ്ങൾ വളരെ അധികം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടും കുഴിയുമുള്ള ഈ റോഡുകളിലൂടെ ഓടിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ് അത് ഭയങ്കര ഒരു എൻ്റർടെയിൻമെൻറ്റുമാണ് ആൾക്കാരുടെ അലർച്ച കേൾക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഉത്സാഹം വരും നമ്മളപ്പോൾ ആ സെൽഫിൽ നിന്ന് കയ്യെടുക്കില്ല പവറുള്ള വണ്ടിയായത് കൊണ്ട് എല്ലാ കുണ്ടും കുഴിയും നിസ്സാരമായിട്ടായിരുന്നു കടന്ന് പോയത് അതൊരു വലിയൊരു സന്തോഷവും അനുഭവവും ആയിരുന്നു എനിക്ക് പിന്നേ ആ കാണികളുടെ വക നമുക്ക് ഒരു സമ്മാനമായിരുന്നു അവസാനമായിട്ട് ലഭിച്ചത് ഒരു വലിയ ഒരു ട്രോഫി വിജയ വിജയിച്ച ആൾക്കാർക്ക് പിന്നേ